നമ്മളിപ്പോൾ നീന്താൻ പോകുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ നല്ലൊരു വർക്കൗട്ട് നല്ലൊരു പരിശീലനമൊക്കെ ചെയ്യാൻ പോകുന്നതിൻ്റെ മുൻപ് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കും എന്തായാലും മിക്കവാറും രാവിലെ നേരത്തെ ആയിരിക്കും ഇതിനൊക്കെ പോകുക അപ്പോൾ അതിനുമുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കറക്ടായിട്ട് കുടിക്കും പിന്നെ വേവിച്ച അല്ലെങ്കിൽ പുഴുങ്ങിയെടുത്ത ഈ നമ്മളെ പയർ ഐറ്റംസ് ഏതെങ്കിലും പയറിന്റെ ഇപ്പോൾ ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് മുളപ്പിച്ചത് കുറച്ച് ഒരു കുറച്ചു കഴിക്കും അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു എനർജി കിട്ടും പിന്നെ അതുപോലെ വെള്ളത്തിൻറെ നമ്മളെ അത്ര വർക്കൗട്ട് ചെയ്യണ അത്ര കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്താലും അത്ര വലിയ പ്രശ്നം ഒന്നും വരില്ല നമുക്ക് പിന്നെ ഭക്ഷണം ഭക്ഷണ ക്രമീകരണം ഇപ്പോൾ നീന്താനൊക്കെ പോകുന്ന മുമ്പ് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മള് കുറച്ച് വെള്ളം അത് പോലെ കുറച്ചെന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് അതും രാവിലെ നേരത്തേയ്ക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് പോലെ വേറെ പയർ വർഗ്ഗങ്ങളെന്തേലും ചെറുതായിട്ട് മുളപ്പിച്ചത് അങ്ങനെന്തേലും കാര്യങ്ങള് കുറച്ച് കഴിക്കാ അങ്ങനെയൊക്കെയുള്ളൂ അല്ലാണ്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്ത് ഫുൾ ആയിരിക്കും അതിപ്പോൾ ഹെവി ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ നമുക്ക് നീന്തണ സമയത്ത് വയർ കൊളുത്തി പിടിക്കാനോ അങ്ങനെയൊക്കെ ചാൻസുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറയണത്